എന്റെ കല്യാണം പത്താം ക്ലാസിൽ നിന്ന് കഴിഞ്ഞണ് അന്ന് ഒന്നും എനിക്ക് ഇവിടെ വന്നതിന് ശേഷം പാചകത്തെ കുറിച്ചൊന്നും ഒന്നും അറിയില്ലെനു ഉമ്മ ഇങ്ങനെ ഉണ്ടാക്കും നമ്മൾ അങ്ങനെ തിന്നും അത്ര തന്നെ പിന്നെ ഇങ്ങനെ അരിഞ്ഞൊക്കെ കൊടുക്കലൊക്കെ ഇങ്ങനെ തുടങ്ങി പച്ചക്കറിയൊക്കെ ഉപ്പേരിക്കും കറിക്കൊക്കെ ഇങ്ങനെ അരിഞ്ഞൊക്കെ കൊടുത്ത് ഉമ്മാനെ ഇങ്ങനെ സഹായിച്ചു പിന്നെ ഉമ്മ ഒപ്പം ഉണ്ടല്ലോ എന്നുള്ള ധൈര്യത്തിൽ പിന്നെ നമ്മൾ അങ്ങനെ കൂടുക ഒന്നും ഇല്ലായിരുന്നു പിന്നെ പുതിയ വീടൊക്കെ എടുത്ത് പുതിയ വീട്ടിലേക്ക് താമസം ഒക്കെ ആയതിന് ശേഷം നമ്മൾ ഒറ്റയ്ക്ക് തന്നെ നമ്മൾക്ക് ചെയ്യണമല്ലോ അല്ലാതെ പട്ടിണി കിടക്കാന് പറ്റില്ലല്ലോ അപ്പം അതിനു വേണ്ടി ഇങ്ങനെ ഓരോന്ന് ഓരോന്ന് ഇങ്ങനെ ഉണ്ടാക്കി നോക്കണം വിചാരിച്ച് കൊണ്ട് ഇങ്ങനെ ഉമ്മാനോടും യൂട്യൂബിലൊക്കെ ചോദിച്ചു നോക്കികൊണ്ട് ഉണ്ടായി പാചകം തുടങ്ങി ഫസ്റ്റ് തന്നെ ബിരിയാണി ഉണ്ടാക്കിയപ്പം അപ്പം ആദ്യം ആയപ്പത്തേന് അറിയാതെ ആയി പിന്നെ ഉമ്മാക്ക് വിളിച്ച് ചോദിച്ച് ഉമ്മാനോട് ചോദിച്ചും ഉമ്മ ഒക്കെ പറഞ്ഞു തന്നു അങ്ങനെ ഒക്കെ ഒപ്പിച്ചുണ്ടാക്കി പിന്നെ ഭക്ഷണം കഴിച്ച് എല്ലാവരും അഭിപ്രായം നല്ലത് പഞ്ഞപ്പോൾ പിന്നെ നല്ല ഇത് സന്തോഷമായിരുന്നു അത് കേട്ടപ്പോൾ പിന്നെ പിന്നെ പാചകത്തിനോട് നല്ല ഒരു താല്പര്യവും ഇഷ്ടമൊക്കെ തോന്നി ഇപ്പോൾ പാചകം ഉഷാറായിട്ട് ചെയ്യും പിന്നെ എല്ലാവരും നല്ല അഭിപ്രായം പറഞ്ഞ നല്ല ഒരു സന്തോഷമാണ് പിന്നെ പെരുനാളിനൊക്കെ നല്ല ബിരിയാണിയും എന്താ മന്തീം ഫ്രൈഡ് റൈസും ഇതൊക്കെ ഉണ്ടാക്കും ഇപ്പോൾ ഇപ്പോൾ ഈ യൂട്യൂബ് ഒക്കെ നോക്കി എല്ലാം ശരിയാക്കും